മൃഗവളർത്തലിൽ ഞങ്ങൾ വളർത്തുന്ന മൃഗങ്ങളെന്നു പറഞ്ഞാൽ കോഴി ആട് പശു പട്ടി മീനുകൾ എന്നിവയൊക്കെയാണ് ഞങ്ങൾ വളത്തുന്നത് അത് ഞങ്ങൾക്കൊരു വരുമാന ശ്രോതസ്സാണ് അതു പോലെതന്നെ ഞങ്ങളതിനെ പരിപാലിക്കുന്നു പരിപാലിക്കുന്നുണ്ട് വരുമാനശ്രോതസ്സെന്നു പറയുമ്പോൾ മീൻ ഞങ്ങൾ വിൽക്കാറുണ്ട് അ മീനുകളെ ഗപ്പിപോലുള്ള മീനുകളൊക്കെയാണ് ഞങ്ങൾക്കു കൂറ്റുതലുള്ളത് അതു കൊണ്ട് അത് കൂടുതലാൾക്കാരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള വഴികൾ ഇപ്പം നമുക്കുള്ളതുകൊണ്ട് ആളുകളതിനെ വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾക്കത് വരുമാനം നല്ല അത്യാവശ്യം വരുമാനം അതിൽ നിന്നു കിട്ടുന്നത് പിന്നെ കോഴി ഉള്ളതുകൊണ്ട് മുട്ട നമ്മൾ വീടിനാവശ്യം ഉള്ളതും കിട്ടു വീടിനു നമുക്ക് ആവശ്യം ഉള്ളതും കിട്ടുന്നുണ്ട് മറ്റുള്ളവർക്ക് ചുറ്റുപാടുമുള്ളവർക്കുള്ളതും നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ പശു പശും ആടും അത് നമുക്ക് പാലു തരുന്നു അതുകൊണ്ടു തന്നെ നമുക്കാ വീടിന് ആവശ്യമുള്ള പാലും പിന്നെ അയൽവക്കങ്ങളിലും അത്യാവശ്യം ദൂരങ്ങളിലൊക്കെ കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനെയൊക്കെ പരിപാലിക്കുന്നെന്നു പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആടിനെയും ആടിനും പശുവിനൊക്കെ നമ്മൾ ചുറ്റുപാടുമുള്ള സംഭവങ്ങൾ പുല്ലൊക്കെ തന്നെ മതി അതുകൊണ്ട് അതുങ്ങളെ നോക്ക് അ അതുങ്ങൾക്കു വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നു പറയുന്നത് വളരെ സിമ്പിളാണ് നമ്മളവരെ അവരെ അവിടെ കൊണ്ടു നിർത്തിയാൽ മാത്രം മതി അവർ നമുക്കാവശ്യമുള്ളതെല്ലാം തരും വരുമാന ശ്രോതസ്സായി ഇതു തന്നെ ഞങ്ങൾ നല്ലൊരു വരുമാനം ഞങ്ങൾക്കിത് കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഞ നല്ലൊരു ജീവിതമാർഗ്ഗമാണ് ഇത് പലർക്കും നോക്കാവുന്നതാണ്